ആ ഹലോ ബെയൂ ബെയൂല ബ്യൂട്ടി പാർലർ ഗുഡ് ഈവനിംഗ് ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ പെഡിക്യൂർ നമുക്ക് അതായത് അഞ്ഞൂറു രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ഉള്ളത് അഞ്ഞൂറു രൂപ തൊട്ട് രണ്ടായിരം രൂപ വരെ ഉള്ളതുണ്ട്

നോർമൽ മതിയോ അപ്പം നോർമൽ ആകുമ്പം നമുക്ക് ആണോ നമുക്ക് അലോവെരയുടെ ഉണ്ട് പ്ലമ്മിൻ്റെയുണ്ട് ഇതിൽ ഏതാണ് വേണ്ടത് ആ ഓക്കെ പ്ലമ്മിൻ്റെ മതി ആ ഓക്കെ എപ്പോഴത്തേക്കായിരിക്കും വരുന്നത് ആ ഓക്കെ നാളെ രാവിലെ എന്നു പറയുമ്പോൾ ഏകദേശം സമയം എത്ര മണിക്ക് വരുക ഞങ്ങളുടേത് ഷോപ്പ് പത്തു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പത്തേ കാലൊക്കെ ആകുമ്പോൾ വന്നാൽ മതി ഓക്കെ